ആ അതെ മേഡം പറഞ്ഞോളൂ പറഞ്ഞോളൂ മേഡം അതുതന്നെയാണ് ഓഫർ ഉണ്ട് മേഡം അത് കാർഡ് ഉള്ളവർക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് മേഡത്തിന് ഇവിടുത്തെ കാർഡ് ഉള്ളതാണോ ഓക്കെ മേഡം പറഞ്ഞോളൂ എന്തൊക്കെയായിരുന്നു മേഡത്തിന് വേണ്ടത് നമുക്ക് വെജിറ്റബിൾസിന് വരുന്നുണ്ട് ഫിഷ് ഐറ്റംസിന് വരുന്നുണ്ട് റൈസ് കാര്യങ്ങൾ ഫ്രൂട്സ് അതിനൊക്കെയാണ് ഇപ്പോൾ ഓഫർ ഉള്ളത് മേഡത്തിന് എന്തെങ്കിലും ഇങ്ങനെ ഫ്രൂട്സ് എല്ലാം നമുക്ക് വൺ കെ ജി ബേസിലാണ് ഓഫർ വരുന്നത് ആപ്പിൾ ഇപ്പോൾ നമുക്ക് വൺ കെ ജി എടുക്കുവാണെങ്കിൽ സിക്സ്റ്റി നയൻ റുപ്പീസിന് വൺ കെ ജി ബൾക്ക് ഓ വൺ കെ ജിയിൽ മേലെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഓഫർ ഉണ്ടാവില്ല വെജിറ്റബിൾസ് ഇപ്പോൾ ഏതാണ് മേഡം നോക്കുന്നത് തക്കാളി ഫോർട്ടി നയൻ റുപ്പീസ് ആണ് വൺ കെ ജിക്ക് വരുന്നത് ആ ബൾക്ക് ആയിട്ടായേലും മേലെ വരുവാണെങ്കിൽ നമുക്ക് എമൗണ്ട് വ്യത്യാസം വരും മേഡം സെയിം റേറ്റ് അതായത് മാർക്കറ്റ് റേറ്റിന് തന്നെ എടുക്കണം ആ എല്ലാം വൺ കെ ജി വെച്ചാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് സോപ്പ് പൊടി ഐറ്റംസിന് നമ്മൾ ഓഫർ ചെയ്യുന്നില്ല അതിപ്പോൾ നമുക്ക് ഓൾറെഡി ഓഫർ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ വൺ കെ ജി അങ്ങനെ എന്താണ് പറയുക ബൾക്ക് ആയിട്ട് ടെൻ കെ ജിൻ്റെ ഒക്കെ ഒരു ബക്കറ്റ് അടക്കം അങ്ങനെയാണ് ഇത്ര ഓഫറിന് വരുന്നത് അതിന് പേയ്മെന്റ് ഇപ്പോൾ ടെൻ കെ ജിക്ക് ആണെങ്കിൽ നമുക്കൊരു ട്രിപ്പിൾ നയനിന് കൊടുക്കാം അതാണ് ത്രിപ്പിൾ നയനിന് കൊടുക്കാം റൈസിനൊക്കെ നമുക്ക് ഇപ്പോൾ എന്താണ് പറയുക പെർ കെ ജി ആണെങ്കിൽ നമുക്കൊരു തേർട്ടി ടു റുപ്പീസിനൊക്കെ കൊടുക്കാം അതു ഫുൾ ബൾക്ക് ആയിട്ടെടുക്കുവാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്തുതരാം മേഡം ആ ഫുൾ ബാഗ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൽ ഡിസ്കൗണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നുതന്നെ നമ്മൾ ഡിസ്കൗണ്ട് അറേഞ്ച് ചെയ്തുതരാം മാഡത്തിന് എന്താണ് ഹോംലി യൂസിനാണോ അതോ എന്തെങ്കിലും പാർട്ടി ബേസിനാണോ വല്ല ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാണോ ആണല്ലേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇത് പരമാവധി ഡിസ്കൗണ്ടിൽ തന്നെ ചെയ്തുതരാൻ പറ്റും മേഡം മേഡം ഇവിടുന്ന് തന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തു തരാം ഓഫറിന് നമുക്ക് ഇന്ന് വരുന്നുണ്ട് മേഡം നോക്കിയിട്ട് എന്താണെന്നുവെച്ചാൽ ചെയ്താൽ മതി വിളിച്ചിട്ട് വന്നാൽ മതി